ഇന്ത്യയിലെ ഔദ്യോഗിക ഭാഷകളേതൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ മലയാളം ഹിന്ദി തെലുങ്ക് തമിഴ് സംസ്കൃതം ഇത്രയും ഭാഷകളാണ് ഉള്ളത് അപ്പം നമുക്ക് ഇതില് മെയിൻ ആയിട്ട് നമ്മള് പറയുന്നത് നമ്മുടെ ഭാഷ മലയാളം തന്നെയാണ് ഇപ്പോൾ മലയാളത്തിലുള്ള ഈ സംസാരം തന്നെ പല പല സ്ഥലങ്ങള് ചെല്ലുമ്പളും പല രീതിയിലാണ് പല ഈ മലയാളം തന്നെ സംസാരിക്കുന്നത് ഭാഷയെക്കുറിച്ച് നമ്മള് പറയുകയാണെങ്കിൽ മറ്റുള്ളവരുമായി ആശയവിനിമയം നടത്താനുള്ള ഏറ്റവും നല്ലൊരിത് നമ്മുടെ ഭാഷ തന്നെയാണ് ഭാഷ വികാസമെന്നത് കുട്ടികൾ ഭാഷ മനസിലാക്കുകയും അതുപയോഗിച്ച് ആശയവിനിമയം നടത്താനുമൊക്കെ ചെയ്യുന്നതാണ് ജനനത്തിൻ്റെ ആദ്യ നാളുകളിൽ തന്നെ ഭാഷ വികാസം ആരംഭിക്കുന്നു കുട്ടികളുടെ മുൻ വളർച്ചയ്ക്കും കുട്ടികൾ ജനിച്ച് ഇത്ര ദിവസം കൊണ്ട് കുട്ടികൾ നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ മുഖത്ത് നോക്കിയാൽ ഭാഷയിലൂടെ മനസിലാക്കാനുമൊക്കെ കുട്ടികൾക്ക് കഴിയുന്നു പിന്നെന്താണ് പിന്നെ നമുക്ക് ഭാഷയെന്നത് വലിയൊരു ഘടകം തന്നെയാണ് പുറം നമ്മളൊരു പുറം രാജ്യങ്ങളിൽ പോകുവാണെങ്കിൽ കൂടി അവിടെ സംസാരിക്കുന്ന ഭാഷ എന്നത് നമുക്ക് എങ്ങനെ മനസിലാക്കാൻ പറ്റുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പം നമ്മുടെ കുട്ടികൾ വളർന്ന് വരുന്ന കുട്ടികൾ മലയാളം സംസാരിക്കാൻ വളരെ പിന്നോട്ടാണ് ഏറ്റവും നല്ല ഇംഗ്ലീഷ് മീഡിയത്തിലാണ് നമ്മള് കുട്ടികളെ സ് ചേർക്കുന്നത് അവിടെയാണെങ്കിൽ മലയാളം വളരെ കുറവും മറ്റുള്ള ഭാഷകൾ കൂടുതലുവാണ് സം പഠിപ്പിക്കുന്നത് അപ്പോൾ നമ്മള് തന്നെ നമ്മുടെ കുട്ടികൾക്ക് മലയാളം ഭാഷ പറഞ്ഞ് അത്ര മതി എന്ന് ചിന്തിക്കുന്ന രക്ഷിതാക്കളാണ് മലയാളത്തിന് മാർക്ക് കുറഞ്ഞ് പോയാലും ആ മലയാളം എൻ്റെ കുട്ടിക്കത്ര അറിയില്ല എന്ന് പറയുന്നത് വലിയൊരു കാര്യമായിട്ടാണ് ഓരോ രക്ഷിതാക്കളും ഇപ്പം കാണുന്നത് എ ഇംഗ്ലീഷ് ആണെങ്കിൽ നല്ല മാർക്ക് അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കൽ ഉള്ളു വീട്ടില് ഇംഗ്ലീഷാണ് സംസാരിക്കാന് എന്ന് പറയാനാണ് ഓരോ രക്ഷിതാക്കൾക്കും ഇപ്പോൾ മറ്റുള്ളവരോട് പറയാനിഷ്ടപ്പെടുന്നത്